ആ നമ്മുടെ നാട്ടിൽ കുഴൽക്കിണറുമുണ്ട് സാധാക്കിണറുമുണ്ട് അതെന്നാന്നു വച്ചാൽ ഈ കുഴൽക്കിണർ എന്നു പറഞ്ഞാൽ നമ്മൾ ഇവിടെ വെള്ളം കുഴൽക്കിണറുണ്ട് കാരണം വെള്ളം നമ്മൾക്ക് കുടിക്കാനായിട്ട് കുഴൽക്കിണറ്റിലെ വെള്ളം നമ്മളുപയോഗിക്കാറില്ല പിന്നെ അതിനകത്ത് തന്നെ മോട്ടർ വച്ചാണ് അതിനകത്തുനിന്ന് നമ്മൾ ടാങ്കിൽ അടിച്ചുകയറ്റി പിന്നെ ഇച്ചിരി കുഴൽക്കിണറ്റിലെ വെള്ളം എന്നു പറഞ്ഞാൽ ഇച്ചിരി കട്ടിയുള്ള വെള്ളമാണ് ആ വച്ചാൽ ഇവിടെ കുഴൽക്കിണർ നമ്മൾ വെള്ളം കൂടുതൽ വീട്ടുകാരും കുഴൽക്കിണർ ഉപയോഗിക്കാറുണ്ട് അതിനകത്ത് ഇപ്പോൾ കുടിക്കാൻ മാത്രം അവർ വെള്ളം അതിനത്തു നിന്ന് ഉപയോഗിക്കാറില്ല പിന്നെ കിണർ ഇവിടെ എല്ലാ വീടുകളിലും കിണറുണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ വീടുകളിൽ മാത്രം കിണറില്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നെടുക്കാം എടുക്കാമെന്നുള്ളതാണ് ഇവിടെ ഏകദേശമുള്ളത് കാരണം എന്ന് വച്ചാൽ പിന്നെ കുഴൽക്കിണറ്റിന്റെ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്താണെന്ന് കാരണെം എന്ന് വച്ചാൽ അവിടെ ഞാൻ അതിനേക്കുറിച്ച് അറിയത്തില്ല കാരണം നമ്മൾ ആൾക്കാരോട് പറഞ്ഞ് അവർ വന്നൊക്കെ വെള്ളമടിച്ചിട്ട് പോകുന്നു പിന്നെ അവരെല്ലാം എല്ലാം ഫിറ്റ് ചെയ്ത് തരുന്നു നമുക്ക് പിന്നെ നമ്മൾ ഉപയോഗിക്കുക നമ്മൾ മോട്ടറിടുക വെള്ളം അടിച്ചുകയറ്റുന്നു അത് നമ്മളുപയോഗിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയത്തുള്ളു പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ കിണറിലെ കിണറ്റിലെ വെള്ളമാണ് നമ്മുടെ നാട്ടിലായിട്ട് പഞ്ചായത്തിൽ നിന് പഞ്ചായത്തിൽ നിന്നൊരു വലിയ എല്ലാവരും ഉപയോഗിക്കുന്ന ഒറ്റ ഒരു വലിയ കിണറായിട്ട് ഇവിടെ ഈ നാട്ടിലില്ല പിന്നെ നമ്മൾ വീട്ടിൽ വീടുകളിൽ മാത്രം ഉള്ള കിണറുകൾ മാത്രമേ ഞങ്ങളിവിടെ ഇപ്പോൾ ഉപയോഗിക്കാറുള്ളു കണ്ടിട്ടുമുള്ളു